ഈ അടുത്ത വർഷങ്ങളിലായിട്ട് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിലെങ്ങനെയാണ് വളർച്ച അല്ലെങ്കിൽ വികസനം വന്നതെന്നു ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ പറയാം ഇപ്പം നമ്മളിപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ബാങ്കിങ്ങ് സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ആൾക്കാർക്ക് ആൾക്കാരിലേക്കെത്തുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാം ബാങ്കുകളിലൂടെയും അതു പോലെ തന്നെ ആൾക്കാർ കൂടുതൽ ഫോണിൽ തന്നെ എല്ലാം നമ്മൾ എന്താ പറയുക നെറ്റ് ബാങ്കിങ്ങ് എന്നു പറയുന്ന സംഭവം കൊണ്ടു വന്നതോടു കൂടി ആൾക്കാർ കുറേയൊക്കെ ഫോണിൽ കൂടെ എല്ലാ പൈസ ഇടപാടുകളും ചെയ്യാൻ ശ്രമിക്കുകയും പൈസ ഇടുകയും നേരത്തെ പൈസ ഇടുക പൈസ എടുക്കുക ഒക്കെ ഭയങ്കര പാടായിരുന്നു പക്ഷെ ഇപ്പം അത് കുറച്ചും കൂടിയാൾക്കാർക്ക് എളുപ്പമുള്ള രീതിയിലായിട്ടുള്ളതു കൊണ്ട് തന്നെ നമുക്ക് അതൊരു റീസണായിട്ടതൊരു കാരണമായിട്ടു പറയാൻ പറ്റുന്നൊരു ഒന്നാണ് പിന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങ് അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് സാമ്പത്തിക മേഖലയെ ഉറപ്പായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ ഇതൊക്കെയാണ് ആൾക്കാർ പണ്ട് കൂടുതൽ ബാങ്കിൽ പോയൊരു കാര്യം ചെയ്യുകയെന്നു പറയുന്നത് വലിയൊരു പണിയായിട്ടായിരുന്നു കണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ എല്ലാ ഇടപാടുകളും ബാങ്കിൽ കൂടി ആയതു കൊണ്ടും നമ്മുടെ കയ്യിലെല്ലാവരുടെയും കയ്യിലും ഫോണുള്ളത് കൊണ്ട് സ്മാർട്ട് ഫോണുകളുള്ളത് കൊണ്ടും ആൾക്കാർ കൂടുതലും നെറ്റ് ബാങ്കിങ്ങ് പോലെയുള്ള സംഭവത്തെ കൂടുതൽ എന്താ പറയുക ആശ്രയിക്കുകയും അങ്ങനെ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എളുപ്പം ആകുകയും ചെയ്യുന്നുണ്ട് അതു കൊണ്ട് നമുക്ക് പറയാം അങ്ങനെ സഹായിച്ചുവെന്നു പറയാം പിന്നെ വളർച്ചക്കു കാരണമായ പ്രധാ പ്രധാന വ്യവസ്യാ വ്യവസായങ്ങളിതൊക്കെയാണ് അതായത് ഇപ്പം പല രീതിയിലുള്ള വ്യവസായങ്ങളാൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ മെയിനായിട്ടും ഇപ്പം കൂടുതലും തുണിത്തരങ്ങളുടെ ആണെങ്കിലും വ്യവസായങ്ങളാണെങ്കിലും അതേപോലെ തന്നെ സ്ഥലങ്ങളുടെ വ്യവസായങ്ങളാണെങ്കിലും അതേ പോലെ തന്നെ വലിയ വലിയ ഇൻഡസ്ട്രികളുടെ വ്യവസായങ്ങളൊക്കെ ആണെങ്കിലും ഉറപ്പായിട്ടും സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്